സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഏറ്റവും പ്രിയ്യപ്പെട്ട വിഷയം ഇംഗ്ലീഷായിരുന്നു അപ്പം ആദ്യമൊക്കെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇംഗ്ലീഷൊന്നും വലിയ ഒന്നും എനിക്കറിയില്ലായിരുന്നു പിന്നേന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഞാന് പിന്നെ ഒരു മൂന്നാം ക്ലാസ്സോക്കെ ആയപ്പഴേ ശരിക്കും പറഞ്ഞാൽ ഞാൻ എബിസിഡിയൊക്കെ പഠിച്ച് തുടങ്ങിയത് അപ്പം പിന്നെ എബിസിഡിയൊക്കെ പഠിച്ച് തുടങ്ങിയത് ഞാൻ മൂന്നാം ക്ലാസ്സെത്തിയപ്പോഴാണ് അപ്പം എനിക്കങ്ങനെ മൂന്നാം ക്ലാസ്സൊന്നും എനിക്കങ്ങനെ പിടുത്തം ഒന്നുമില്ല പക്ഷെ അഞ്ചാം ക്ലാസ്സിൽ നിന്ന് ഞങ്ങൾക്ക് പരമേശ്വരൻ എന്ന് പറഞ്ഞ സാറുണ്ടായിരുന്നു ആ സാറാണ് എനിക്ക് ശരിക്കും പറഞ്ഞ് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് നല്ലോണം പഠിപ്പിച്ചത് കാരണം എന്താന്ന് വച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ വാക്കുകളും കാര്യങ്ങളൊക്കെ തന്നെ നമ്മക്ക് ഡിക്റ്റേഷൻ കാര്യങ്ങള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തരും അപ്പോൾ ഡിക്റ്റേഷൻ പിന്നെ ഡിക്റ്റേഷൻ ചെയ്യുമ്പോ ഡിക്റ്റേഷനക്കെ ചെയ്യുമ്പോൾ ഞാന് ഇങ്ങനെ കാണാപാഠം ഞാൻ പഠിച്ചിട്ട് പോകും അപ്പം ആദ്യമൊന്നും എനിക്കങ്ങനെ അതായത് പിന്നെ കുറെയൊക്കെ തെറ്റുമായിരുന്നു പിന്നെ ഞാൻ വീട്ടില് ഇരുന്ന് പോയി പോയി ഞാൻ വീട്ടിൽപോയ പാടെ ഇരുന്ന് ഡിക്റ്റേഷനൊക്കെ പത്ത് വേർഡൊക്കെ ഉണ്ടാവുകയുള്ളു ആ പത്ത് വേർഡും പഠിക്കും അങ്ങനങ്ങനങ്ങനെയാണ് ഞാൻ ഇംഗ്ലീഷ് പഠിച്ചത് അങ്ങനെ എനിക്ക് ഫസ്റ്റായിരുന്നു ഡിക്റ്റേഷനൊക്കെ പിന്നെ എനിക്ക് പിന്നെ ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ഞാന് ബിഎ ഇംഗ്ലീഷ് എടുത്തത് എനിക്ക് ഇംഗ്ലീഷ് എന്ന വിഷയം ഇംഗ്ലീഷ് എന്ന പറയുന്ന വിഷയം അത്രക്ക് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ അതെടുത്തത്